ഞങ്ങള് യാത്രക്കായിട്ട് കൂടുതലായിട്ടും തിരഞ്ഞെടുക്കുന്നത് ഗതാഗത രീതി എന്ന് പറയുന്നത് എന്താപറയുക ട്രെയിനിൽ ഒക്കെ പോകുന്നതൊക്കെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതെന്ന് പറയാണെങ്കില് നമ്മള് ബസ്സ്നൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ബസ്സിനൊക്കേ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയുക എല്ലാർക്കും ബസ്സ് പറ്റണം എന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്കതില് വൊമിറ്റെയ്യാനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ട്രെയിനിലൊക്കെ പോകുവാണെങ്കിൽ തന്നെ നമ്മള് സെയിഫാണ് എന്ന് വെച്ചാൽ എന്താ പറയുക ഒരു പ്രശ്നവുമില്ല നല്ല സമൂത്തായിട്ടങ്ങ് പോയിക്കോളും പിന്നെ അയിനെക്കുറിച്ചുള്ള അവിസ്മരണീയമായ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്താ പറയുക ട്രെയിൻ എന്ന് പറയുന്നത് എന്താപറയാ നമ്മക്ക് എത്തേണ്ട സ്ഥലത്ത് അത്യാവശ്യായിട്ട് എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തലൊക്കെ ഉണ്ട് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫ്ലൈറ്റ് ആണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരൂ ട്രെയിന്നൊര് അഞ്ചാറ് മണിക്കൂറ് പോവെണ്ട ഒരു സ്ഥലത്തിന് ഫ്ലൈറ്റ്ന് നമ്മള് ഒരു ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് എത്തും അപ്പോൾ ആ ഒരു ടൈം ഡിഫ്രെൻറ്സ് അവിടെ ഇണ്ട് കാരണം ഫ്ലൈറ്റിൻ്റെയും ട്രെയിനിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം ഈ ആറ് മണിക്കൂറ് പോകണ്ട സ്ഥലത്ത് ബസ്സിൻ്റെ പോവാണെങ്കില് ഒരു ദിവസം തന്നെ എടുക്കേണ്ട വരും അതുകൊണ്ട് തന്നെ ഏറ്റവും സുഖം ട്രെയിനോ അല്ലെങ്കില് ഫ്ലൈറ്റ് ആ ഒരു ഗതാഗത രീതിയാണ് ഞങ്ങൾക്ക് ഏറ്റവും സുഖം എന്ന് പറയുന്നത്